ഇപ്പം എല്ലാവരും കളിക്കുന്ന ഒരു രണ്ട് കളികളാണ് ഫുട്ബോളും ക്രിക്കറ്റും എവിടെ നോക്കി കഴിഞ്ഞാലും ആ കളികളാണ് കൂടുതലും പിന്നെ വോളിബോൾ ഉണ്ട് കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തും എൻ്റെ പ്രദേശത്ത് ആയിട്ടും ഏറ്റവും കൂടുതൽ കളിക്കുന്നതും ഫുട്ബോളും ക്രിക്കറ്റും തന്നെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഇങ്ങനത്തെ കളികൾ കളിക്കാറുള്ളത് അപ്പം മഴയാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ ഒരു പ്രത്യേക രസമാണ് മഴയൊക്കെ പെയ്ത് ചളിയിൽ ഫുട്ബോൾ കളിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു ത്രിൽ ആയിട്ട് ഉള്ള ഒരു സമയമാണ് മഴ പെയ്യും പിന്നെയുള്ള ക്രിക്കറ്റ് ക്രിക്കറ്റ് നമ്മൾ കൂടുതൽ വേനൽ കാലത്ത് മഴയില്ലാത്തപ്പോഴാണ് കളിക്കുക കാരണം മഴയുള്ളപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പം ക്രിക്കറ്റ് അങ്ങനെയാണ് കളിക്കാറ് പിന്നെ വല്ലപ്പോഴും വോളിബോളും കളിക്കാറുണ്ട് വോളിബോൾ പിന്നെ വോളിബോൾ കളിക്കാൻ ആൾക്കാർ കുറച്ച് കുറവായത് കൊണ്ട് അത് വല്ലപ്പോഴേ കളിക്കാറുള്ളൂ പിന്നെ നമ്മൾക്കിവിടെ പ്രാദേശികമായിട്ട് ഒരു ഗ്രൗൻഡ് ഉണ്ട് വീടിൻ്റെ അടുത്ത് ആ ഗ്രൌൻഡിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി കളിക്കാറ് അതൊരു വയലിലാണ് ആ ഗ്രൗൻഡ് സ്ഥിതി ചെയ്യുന്നത് വലിയ ഒരു ഗ്രൗൻഡ് ആണ് അങ്ങനെയൊക്കെയാണ്